ഇരുപത്തി അഞ്ച് മുന്നൂറ്റി അൻപത്തി എട്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആയിരത്തി മുപ്പത്തി എട്ട് രണ്ടായിരത്തി അൻപത്തി ഒൻപത് ഒരു ലക്ഷത്തി നാൽപ്പത്തിയെട്ടായിരത്തി അൻപത്തി ഒൻപത് മൂവായിരത്തി രണ്ട്